വർഷാരംഭത്തിൽ കലണ്ടർ മേടിച്ച് വെക്കുമ്പോൾ നമുക്ക് വർഷാരംഭത്തിൽ ആ ഒരു വർഷത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ എത്ര ദിവസങ്ങളുണ്ടാകും എന്ന് എന്തൊക്കെയാണ് ദിവസങ്ങളുടെ പ്രത്യേകത എന്നതിനെക്കുറിച്ചുള്ള പല ധാരണകളും ആ കലണ്ടറിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ ഈ കലണ്ടർ പ്രതിമാസ കലണ്ടറായിരിക്കും കൂടുതൽ ആളുകൾ ശേഖരിച്ച് വെക്കാറ് പിന്നെ അതിനകത്ത് ദിവസങ്ങളുടെ ഷീറ്റുകളും കാണാറുണ്ട് പിന്നെ ഈ കലണ്ടറുകളിൽ സ്വാമി പടങ്ങൾ ച്ചാ വെച്ചുള്ള കലണ്ടറുകൾ സ്വീകരിക്കാനുള്ള കാരണം എന്നാ എന്നു വെച്ചാൽ അങ്ങനൊരു കലണ്ടറുകൾക്കൊരു ദൈവീക ആ ഒരു വിശ്വാസം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊരു ധാരണയും കൂടി ജനങ്ങളുടെ ഇടയിലുള്ളതായിട്ട് കാണിക്കുന്നു പിന്നീ കടകളൊക്കെ അവരുടെ പരസ്യം പതിച്ച കലണ്ടറുകൾ നൽകുമ്പം അവിടൊരു കച്ചവട സാധ്യത കൂടി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്